ഹലോ കേൾക്കുന്നില്ലേ ആ എടീ നീ എനിക്കൊരു വീട് ഒപ്പിച്ച് തരുവോ കോഴിക്കോട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് നാലുകെട്ട് ആ നാലുകെട്ടും മരത്തിൻ്റെ കൊത്ത് പണിയൊക്കെയുള്ള

ആ അതുതന്നെ വേണം ഉള്ളിലോട്ടായാലും കുഴപ്പമില്ല നല്ല വീട് ആയിരിക്കണം കുറേ പോവണോ വണ്ടി പോകുവോ വണ്ടിയൊക്കെ പോകുവോ ആ ആ വണ്ടി പോവുന്നുണ്ട്

ആ സർവീസിന് വേണം പിന്നെ മരത്തിൻ്റെ കൊത്ത് പണികളൊക്കെ ഉള്ളതല്ലേ പഴയ ടൈപ്പ് പഴയ ടൈപ്പ് ആയിരിക്കണം പക്ഷേ ഇങ്ങനെ നല്ല ഇതിൽ വേണം

എനിക്കൊരു അമ്പത് ലക്ഷമാണ് സ്ഥലവും വീടും കൂടി എത്രയാവും

അത് നീ ചോദിച്ച് നോക്ക് അവരോട് കുറച്ച് തരുവോ എന്ന് ഞാൻ ഇപ്പോൾ കോഴിക്കോടില്ല ഞാൻ ഇപ്പോൾ ഞാൻ ഒരു ആ ഞായറാഴ്ച്ച വരും ആ നീ എല്ലാം റെഡി ആക്കി വയ്ക്ക്

കിണറും വെള്ളമൊക്കെയില്ലേ

വെള്ളം നല്ല വെള്ളം നല്ല വെള്ളമൊക്കെയല്ലേ

ആ എന്നാൽ ശരി